ആ ആ ആ എത്രയാണ് എത്ര പവൻ ഉണ്ട് ആ ആ ആ ആ അപ്പോഴൊരു ഇവിടെ തൂക്കി നോക്കിയിട്ടൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ എത്ര നമുക്ക് കറക്ട് അറിയില്ലല്ലോ നാല് പവനുണ്ടോ അതിൽ കൂടുതലാണോയെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഒരു പവന് മുപ്പതിനായിരം രുപയാണ് കിട്ടുന്നത് അപ്പോൾ തൂക്കി നോക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കും ക്യാഷ് തരുന്നത് അപ്പോൾ നിങ്ങൾ ബാങ്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു തരാം പിന്നെ ആ പിന്നേ ഇവിടെ ഗോൾഡ് ലോണിനൊക്കെ എട്ട് ശതമാനം പലിശയാണ് വരുന്നത് പിന്നെ അതുപോലെതന്നെ കാർഷിക ലോണൊക്കെയാണെങ്കിൽ കാർഷിക ലോണ് ഹൗസിങ്ങ് ലോണ് ഒക്കെയാവുമ്പോൾ അഞ്ച് ശതമാനം പലിശയെ വരുന്നുള്ളു അപ്പോൾ എത്ര അപ്പം ഗോൾഡ് ലോൺ തന്നെയാണോ വേണ്ടത് അല്ലെങ്കിൽ വേറെയേതെങ്കിലും ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ആ ആ ഓക്കെ അപ്പോൾ ആ എന്തായാലും നമ്മൾക്ക് എന്താ ഇവിടെ വന്നിട്ട് എത്രയുണ്ട് എന്ന് നോക്കാം എത്രയുണ്ട് എന്ന് നോക്കാം എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് ക്യാഷ് എടുക്കാം പിന്നെ അതുപോലെതന്നെ ഇവിടെ ഗോൾഡ് ലോണിനാകുമ്പോൾ എട്ട് ശതമാനം ആണ് പലിശ വരുന്നത് പിന്നെ കാർഷിക ലോണും അതുപോലെതന്നെ ഹൗസിങ്ങ് ലോണൊക്കെയാണെങ്കിൽ അഞ്ച് ശതമാനമേ വരികയുള്ളൂ പിന്നെ കൂടുതൽ ക്യാഷ് കിട്ടുകയും ചെയ്യും ഇപ്പോൾ കൂടുതൽ അതിന് നമ്മുടെ നമ്മുടെ പട്ടയവും ആധാരവും ഉണ്ടാകുമല്ലോ ആധാരവും എല്ലാം കൊണ്ട് ഇങ്ങ് വന്നാൽ ആധാരവും ആധാർ കാർഡൊക്കെ കൊണ്ട് ഇങ്ങ് വന്നാൽ മതി അപ്പോൾ അതിപ്പോൾ ഈ ബാങ്കിൽ നിന്ന് തന്നെ ഒരു ഫോം ഉണ്ട് അത് പൂരിപ്പിച്ച് അത് കൊടുക്കുക ആ അതൊക്കെ വരുന്നത് അതുതന്നെ അഞ്ച് ശതമാനം പലിശ നിരക്കിൽ വരും അഞ്ച് ശതമാനം പലിശ നിരക്കിൽ അപ്പോൾ എത്ര വർഷത്തേക്ക് ഒരു രണ്ട് വർഷത്തേക്കാണ് ഇത് വരിക അപ്പോൾ രണ്ട് വർഷം അവസാനം ആവുമ്പം നിങ്ങൾ തുക കൊണ്ടുപോയി അടക്കുക അല്ലെങ്കിൽ അതിന് മുമ്പ് അടക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അടയ്ക്കുക ഓക്കെ അങ്ങനെ അപ്പോൾ കൊണ്ടുവന്നോളു കേട്ടോ വിളിക്കാം ഓക്കെ ആ